ഇപ്പോൾ മെയിനായിട്ട് വരുന്ന അവധി ദിവസങ്ങളില് ഇപ്പോൾ ഒരെണ്ണം ഇപ്പം വന്നാൽ ദീപാവലിയാണ് ദീപാവലി എന്ന് പറഞ്ഞാല് ഭയങ്കര ഹിന്ദുക്കളുടെ ഇതില് ഭയങ്കര ആഘോഷമായി നടക്കുന്ന ഒരു ഫെസ്റ്റിവെല്ലാണ് സോ അന്ന് ഈവെനിംഗ് എല്ലാ വീടുകളിലും നൈറ്റില് ദീപങ്ങള് കത്തിച്ചായിരിക്കും ആ ദീപാവലി ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോയി ദീപങ്ങൾ കത്തിക്കുന്നവരും ഉണ്ട് സോ ദീപാവലി ഭയങ്കര ആ ഒരു ഭയങ്കര ഫെസ്റ്റിവല്ലായിട്ടാണ് ഇന്ത്യക്കാര് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ആഘോഷിക്കുന്ന ഒന്നാണ് നവമി നവമി എന്ന് വച്ചാല് മൂന്നു ദിവസം നീണ്ട് നിക്കുന്ന ഒര് ഭയങ്കര ഒരു ആഘോഷം ആണ് ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ബുക്ക് ആഹ് പൂജക്ക് വെക്കാറുണ്ട് ക്ഷേത്രങ്ങളിലാണേലും ഈ സമയങ്ങളിലാണ് ചെറിയ കുട്ടികളെ കൊണ്ട് ആ ഹരിശ്രീ എഴുതിപ്പിക്കുന്നത് അങ്ങന തന്നെ കാര്യങ്ങളക്കെ നടക്കുന്നത് ഈ നവമി നാളുകളിലാണ് പിന്നെ ബുക്ക് പൂജക്ക് വെക്കുന്നു അതൊരു വിശ്വാസാണ് കാരണം ബുക്ക് പൂജക്ക് നമ്മള് ആയുധ പൂജ എന്നാണ് ഈ പൂജയ്ക്ക് പറയുന്നത്